കോഴി വളര്ത്തലിനെ സാധാരണ ഞങ്ങൾ ഈ കര്ഷക മാസികയ്ക്ക് അകത്ത് ഈ ഇതിനെ പറ്റിയൊക്കെ ഓരോ വിവരണങ്ങളുണ്ട് അതിനകത്ത് ചില വിവരങ്ങള് കൊടുക്കും അപ്പം ആ വിവരങ്ങൾ അനുസരിച്ച് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് സാധാരണ കോഴി വളര്ത്തലിന് കൂട് നല്ല വൃത്തിയാക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത് അതിന് അറക്കപ്പൊടി ഇട്ട് അറക്കപ്പൊടി ഒരു മൂന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് അറക്കപ്പൊടി മാറണം അറക്കപ്പൊടി ഇട്ട് അറക്കപ്പൊടിക്കകത്താണ് ഈ കോഴി കാഷ്ഠം ഇടുന്നത് അങ്ങനെ ആ കാഷ്ഠം ഇട്ടു കഴിയുമ്പോഴത്തേക്ക് അത് നീക്കം ചെയ്യുന്നത് വൃത്തിയായിട്ട് നീക്കം ചെയ്യും നീക്കം ചെയ്ത് വേറെ അറക്കപ്പൊടി ഇടും അത് കോഴിക്ക് സാധാരണ ഇവിടെ അസുഖങ്ങള് വരുന്നത് ഒരു ഒരു പനി പോലെ ഇങ്ങനെ തൂങ്ങിയിരിക്കുന്ന ഒരു അസുഖമായിട്ടാണ് വരുന്നത് അപ്പോൾ ആ അസുഖം വന്നു കഴിയുമ്പോഴത്തേക്ക് കോഴിക്ക് നമ്മൾ പരിസരം വൃത്തിയാക്കി നമ്മൾ കോഴിയെ വൃത്തിയാക്കി കൊടുക്കും കൂടും അതിന്റെ പരിസരങ്ങളുമെല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്യും ആ വൃത്തിയായിട്ട് ചെയ്തു കഴിയുമ്പോഴത്തേക്ക് ഈ ഉള്ള ഒരു ഒരു കാര്യം ആ അസുഖം വന്നിരിക്കുന്ന കോഴികളെ നമ്മൾ മാറ്റി വേറെ ഒരു ചെറിയ പൊടി കൂട് ഉണ്ട് അവിടെ മാറ്റി ഇടും പറ്റാത്തവരെ സുരക്ഷിതമായി വേറൊരു സ്ഥാനത്ത് ഇടും അങ്ങനെ മാറ്റി കൊടുക്കുന്ന ഒരു പതിവുണ്ട് അതുപോലെ തന്നെ സാധാരണ ഇവിടെ കണ്ടു കൊണ്ടിരിക്കുന്നത് കുറച്ചു പ്രായമായ കൊച്ചു കുഞ്ഞുങ്ങൾക്കല്ല കൂടുതൽ വരുന്നത് ഇത്തിരി പ്രായമായ കോഴിക്കാണ് കൂടുതൽ വരുന്നത് അതായത് ഒരു ഒരു മാസത്തെ വളര്ച്ച ഒരു ഒരു കഴിയുന്ന കോഴിക്കാണ് ഈ അസുഖം കൂടുതൽ വരുന്നത് അത് സാധാരണ ഞങ്ങളുടെ ഒക്കെ ഒരു ബോധ്യത്തിലെ ഈ കൂട് പരിസരം വൃത്തിയാക്കുക എന്ന് പറയുന്നത് ഈ കൂട് വൃത്തിയാക്കി അറക്കപ്പൊടിയൊക്കെ ഇട്ട് അതിനകത്ത് കോഴിയെ ഇടുക എന്നുള്ള ഒരു സമ്പ്രദായമായിരുന്നു ഞങ്ങൾ ചെയ്തു കൊണ്ടിരുന്നതേ സാധാരണ നേരത്തെ ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് കഴിഞ്ഞാല് കുറച്ചുകൂടെ മുന്നോട്ടുള്ള കാലങ്ങളിലെ കോഴിക്കേ നമ്മൾ നെറ്റ് ഉണ്ടേ ഇരുമ്പ് നെറ്റേ അതിലുമ്മേ നെറ്റിന്റെ മേൾ ലായിട്ടാണ് കോഴിയെ ഇടുന്നത് അപ്പോൾ ആ നെറ്റിന്റെ കാഷ്ഠം കീഴോട്ട് വരും ആ കാഷ്ഠം കീഴോട്ട് വരുമ്പോഴത്തേക്ക് ആ കാഷ്ഠം നമ്മൾ ഓരോ ഓരോ ദിവസവും നമ്മളത് വാരും കാഷ്ഠം വാരി അത് നമ്മൾ ചെടികള്ക്കോ മറ്റുള്ളതിനൊക്കെ ഇടും അപ്പോൾ അങ്ങനെയൊക്കെ ഇടുമ്പോഴത്തേക്ക് അവിടെ നല്ല വൃത്തിയായിട്ട് വരും അപ്പോൾ ആ വൃത്തി വരുമ്പോഴത്തേക്ക് കോഴിക്ക് മറ്റ് അസുഖങ്ങളൊന്നും പകരുന്നില്ല അതുപോലെ തന്നെ കോഴിക്ക് ആഹാരം കൊടുക്കുന്നത് നമ്മൾ മുന്കാലങ്ങളിലൊക്കെ ഞങ്ങള് സാധാരണ ചോറ് അരി ഇതൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പം കൂടുതലും ഈ പുരോഗമന കാലം വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കോഴിത്തീറ്റ വാങ്ങി അത് കുഴച്ചാൽ കൊടുക്കുന്നത് അത് കുഴച്ച് കൊടുക്കുമ്പം കോഴി തിന്നോളും അത് നമ്മൾ ഇട്ട് കൊടുക്കും പിന്നെ മുന്കാലങ്ങളില് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഒരു ഒരു പരിധി വരെ പറഞ്ഞാല് ആദ്യകാലങ്ങളില് ഹോര്മോണ്സിന്റെയോ എന്തോ വ്യത്യാസം കൊണ്ട് നമുക്ക് ഈ കോഴിക്കൊക്കെ ഈ വസന്തകള് വരാറ് പതിവില്ലായിരുന്നു അങ്ങനെ കൊടുത്തുകൊണ്ട് ഇരുന്ന ആഹാരങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അരി ഗോതമ്പ് ഇങ്ങനെയുള്ള കാര് സാധനങ്ങളൊക്കെ ആനു കൊടുത്തുകൊണ്ടിരുന്നത് അതിനകത്തൊന്നും വലിയ കുഴപ്പം ഒന്നുമില്ലായിരുന്നു ഇപ്പോൾ ഈ ഹോര്മോണ്സിന്റെ വളര്ച്ച വന്ന കാലയളവില് മറ്റ് കാലിത്തീറ്റകളൊക്കെ ഹോര്മോണ്സ് കൂടുതൽ ഉണ്ടാക്കാൻ വളരെ പെട്ടന്ന് കോഴി വളരാനായിട്ടാണ് ഉള്ള ശ്രമങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തുണ്ടിരിക്കുന്നതേ അപ്പോൾ ആ ശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഹോര്മോണ്സിനെ വളര്ച്ചയെ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് കൂടുതൽ രോഗങ്ങൾ കാണുന്നത് കാരണം കോഴി കൂട്ടത്തോടെ കിടക്കുവാണല്ലോ അല്ലാതെ അം അമ്പത് കോഴി ഒക്കെ ഒള്ള ഒരു കൂട്ടമാണ് അപ്പോൾ പനി ഒക്കെ ബാധിച്ചു കഴിഞ്ഞാല് കോഴിയെ കൂട്ടം ഉള്ളതിനെ നമ്മൾ മാറ്റി പാര്പ്പിച്ചുകൊണ്ട് അസുഖം വന്നതിനെ മാറ്റി പാര്പ്പിച്ചുകൊണ്ട് നമ്മൾ അതിന് മരുന്ന് കൊടുക്കുകയും ഇതിനും മരുന്ന് കൊടുക്കും രണ്ടിനും രണ്ടായിട്ട് മരുന്ന് കൊടുക്കും കൂടുതൽ ഉള്ളതിനെ ചിലത് ചത്തു പോവും ചിലത് ചാ രക്ഷപ്പെടും അല്ലാത്ത അങ്ങനെ വരുമ്പം പെടുന്ന ഗുണം എന്നാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഗമില്ലാതിരുന്ന കോഴിക്ക് ഈ നമ്മൾ മരുന്ന് കൊടുക്കുമ്പോള് അത് വളര്ച്ച പ്രാപിച്ച് വരും വളര്ച്ച വരും അത് സാധാരണ ഒരു മൂന്ന് മാസം ആകുമ്പം കോഴിയെ പിടിക്കത്തക്ക പരുവത്തിൽ ഉള്ള വളര്ച്ച ആവും മൂന്ന് മാസം ഹോര്മോണ്സ് കൊടുത്താല് അല്ലാത്ത പഴയകാലത്തെ രീതി അനുസരിച്ച് പറയുകയാണെങ്കില് നമ്മുടെ ഈ പറമ്പിൽ കൂടെ കൊത്തി പെറുക്കി തിന്നുകയും നമ്മള് അരി കൊടുക്കുകയും ഗോതമ്പ് കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് കോഴിക്ക് സാധാരണ അങ്ങനെ രോഗം വരാറ് പതിവില്ലായിരുന്നു കാരണം പുറത്തെ പറമ്പുകളിലെ തീറ്റി ഒക്കെ ഉണ്ടല്ലോ ചിതൽ ഉറുമ്പ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങള് ഒക്കെ കോഴി കൊത്തി പെറുക്കി തിന്നുമായിരുന്നു അത് വലിയ അങ്ങനെ പോകുന്ന കോഴിക്ക് വലിയ കുഴപ്പം ഇല്ല ഈ കൂട്ടിലിട്ട് വളര്ത്തുന്ന കോഴിക്കാണ് കൂടുതലും അസുഖം ഉണ്ടാകുന്നത് കാരണം തിങ്ങി കിടക്കുന്നത് കൊണ്ടാണോ അന്തരീക്ഷത്തിന്റെയാണോ എന്ന് നമുക്ക് അറിയില്ല എങ്കിലും നമ്മൾ പരിസരമൊക്കെ വളരെ വൃത്തിയാക്കിയിട്ടാ കോഴിയെ എനിക്ക് ഇപ്പോൾ എനിക്ക് അമ്പത് കോഴി ഉണ്ട് ഈ അമ്പത് കോഴി നമ്മളെ വളരെ ശ്രദ്ധിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് അമ്പത് കോഴിക്ക് ഒരു മാസം ചില്വാനം